കേരളത്തില് ആചരിക്കുന്ന വ്യത്യസ്ത മതങ്ങള് ഈ വൈദ്യ പരിചരണം വഴിയും ആത്മീയ കൗൺസിലിംഗ് വഴിയും കമ്മ്യൂണിറ്റി സേവനം വഴിയൊക്കെ ആരോഗ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാറുണ്ട് അതായത് പലതരത്തിലുള്ള മതങ്ങള് ഈ കേരളത്തില് ഉണ്ട് അപ്പം ഈ കേരളത്തിലെ ഓരോ മതക്കാരും ചിലപ്പം ഇപ്പം ഉദാഹരണത്തിന് ഹിന്ദു മതമാണെങ്കില് വൈദ്യ പരിചരണം അധികവും ഹിന്ദു മതക്കാരാണ് ചെയ്യുക പിന്നെ ആത്മീയ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത് ഹിന്ദുമതക്കാർ മാത്രമല്ല എനിക്ക് തോന്നുന്നത് കൗൺസിലിങ്ങ് എല്ലാ മതത്തിലും ഉണ്ട് ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിമായാലും ഏത് മതത്തിലായാലും ആത്മീയ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി സേവനം കമ്മ്യൂണിറ്റി സേവനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കമ്മ്യൂണിറ്റി ഏതാണോ അവരുടെ മതവിഭാഗം ഏതാണോ അല്ലെങ്കിൽ ജാതി ഏതാണോ മതവിഭാഗം ഏതാണോ ആ വിഭാഗക്കാർക്ക് അവര് സേവനം ചെയ്യാറുണ്ട് പിന്ന പല രീതിയിലവര് കൗൺസിലിംഗ് നടത്താറുണ്ട് വൈദ്യ പരിചരണം വൈദ്യ പരിചരണം അധികവും കൂടുതലായും എനിക്ക് തോന്നുന്നത് കാണുന്നത് ഹിന്ദു മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മുസ്ലിം മതത്തിലും ഉണ്ട് അത് നമ്മള് ഞാനിപ്പോൾ ഒരു ഹിന്ദു മതക്കാരിയായത് കൊണ്ടാണ് എനിക്ക് ഹിന്ദുമതത്തിനെ പറ്റി കൂടുതൽ അറിയാം ചിലപ്പോൾ മുസ്ലീം മതത്തിലും നന്നായി ഉണ്ടാവാം എനക്കറിയില്ല എന്നാലും ഉണ്ട് പിന്നെ തടവുകാര് അണ്ടർ സ്റ്റഡീസ് ശിശു കുറഞ്ഞ ശിശുക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത മായ രീതിയില് ആചരിക്കുന്ന മതങ്ങള് ഉണ്ട് അതായത് തടവുകാര് തടവുകാരെ തടവുകാരുടെ ഇടയിലും ഉണ്ട് പിന്നെ പല രീതിയിലും ഉണ്ട് ഈ കേരളത്തില് പല തരത്തിലുള്ള മതങ്ങളുണ്ട് അവരൊക്കെ പല രീതിയിലാണ് ആരോഗ്യത്തിൻറ്റെയും സൗഖ്യത്തിൻറ്റെയും പ്രശ്നങ്ങള് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്